നടുവേദന എന്നു പറയുന്നത് മനുഷ്യനായ നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളൊരു കാര്യമാണ് ചിലപ്പോൾ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ വീഴുന്നതിലോ ചിലപ്പോൾ ചില അപകടങ്ങളിലൂടെയോ ചിലപ്പോൾ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആർത്തവ സമയത്ത് നടുവേദന വരാം അങ്ങനെ പലതരത്തിൽ നടുവേദന വരാം തൽക്കാലത്തേയ്ക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ വേദന സംഹാരികൾ കഴിക്കാറുണ്ട് പക്ഷെ അത് ഒരിക്കലും അതൊരു നല്ല ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല കാര്യം നമ്മൾ നടു വേദന എന്തു വേദന ആണെങ്കിലും വേദനയുടെ കാര്യം അറിഞ്ഞിട്ടു വേണം അതിനെ ചികിത്സിക്കാൻ ഇപ്പോൾ നടുവേദനയ്ക്കാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നിലവിലുള്ളൊരു ഒരു കാര്യം എന്നു പറയുന്നത് തിരുമ്മൽ ആയുർവേദ ചികിത്സ കേന്ദ്രത്തിലൊക്കെ പോയാൽ തിരുമ്മും ഇങ്ങനെ തിരുമ്മുന്നതിലൂടെ ഈ നമ്മുടെ ഈ രക്തയോട്ടം രക്തയോട്ടം സാധാരണ ഗതിയിലാക്കാനും ഒക്കെ ഇത് വളരെയേറെ സഹായകരമാണ് അതുപോലെതന്നെ മറ്റൊരു കാര്യം എന്നു പറയുന്നത് ഈ കിഴി കെട്ടുന്നത് പലതരത്തിലുള്ള മരുന്നുകളും മറ്റു സാധനങ്ങളും ഒക്കെ ഉൾച്ചേർത്ത് തുണിയിൽ കിഴി കെട്ടി ചൂട് വയ്ക്കുന്നത് അതും വളരെയേറെ നടുവേദനയ്ക്ക് വളരെയധികം ഫലപ്രദമായൊരു ചികിത്സ രീതിയാണ്